ഓരോ ദിവസവും വെള്ളത്തിന് വെള്ളമില്ലാതെ പറ്റാത്തൊരവസ്ഥയാണ് നമുക്കിപ്പോൾ ഉള്ളത് രാവിലെ എണീക്കുമ്പോൾ തൊട്ട് ഒരു വാഷ് റൂമിൽ പോകുന്നതായിട്ടാണ് കാര്യങ്ങൾ പല്ല് തേക്കാനാകട്ടെ വാഷ് റൂമിൽ പോകാനാകട്ടെ കുളിക്കാൻ പിന്നെ ഇവിടെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ മിക്കതിനും വെള്ളമില്ലാതെ പലതും പറ്റില്ല അതിൻ്റെ പാചകം വളരെ ബുദ്ധിമുട്ടാണ് ഓൾമോസ്റ്റ് എല്ലാത്തിൻറ്റെം പാചകം വളരെ ബുദ്ധിമുട്ടാണ് ഏറ്റോം ബേസിക്കായിട്ടുള്ള നമുക്ക് എല്ലാ ദിവസവും വെള്ളം കുടിക്കാൻ വേണം വീട്ടിൽ ചെടികളും മറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ അതിനൊക്കെ നനക്കാൻ വെള്ളം നനക്കാൻ വേണം ആവശ്യമുണ്ട്

അപ്പം ജീവിതം ഓടുന്നത് പ്രകൃതിയുടെ ഒരു വെള്ളത്തിൽ വെള്ളം കൊണ്ടാണ് എന്ന് വേണേൽ പറയാം അത് ദിവസവും അതിൻ്റെ ആവശ്യകത ഉണ്ട് പിന്നെ സ്ഥിരമായിട്ടത് ഉപയോഗിച്ച് വരുന്നു